ഹലോ സുഹൃത്തുക്കളേ എൻ്റെ പേര് നിവിൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു എൻ്റെ ഭാര്യയുടെ പേര് ക്രിസ്റ്റീന ഇപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്റ്റീനയ്ക്ക് സർനെയിം മാറ്റേണ്ട അവശ്യമുണ്ട് കാരണം വിവാഹം കഴിച്ചൊരു വ്യക്തിക്ക് സർനെയിം മാറ്റണം സർനെയിം മാറ്റിയാലേ എന്തൊരു ആവശ്യങ്ങൾക്ക് പോയാലും എന്തൊരു ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തൊരു പ്രശ്നങ്ങൾക്കായാലും സർനെയിം മാറ്റിയാലേ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം സർനെയിം മാറ്റേണ്ട ആവശ്യമുണ്ട് ആ അപ്പം ഞങ്ങൾ സർനെയിം മാറ്റുന്നത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഈ സ ഇത് മാറ്റുന്ന സർനെയിം മാറ്റുന്ന സ്ഥാപനങ്ങളിലായിരിക്കും പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ ഇപ്പം എന്നാ നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാലും നിങ്ങൾ ഇതുപോലെ സർനെയിം മാറ്റണം സർനെയിം മാറ്റിയാലേ എന്തൊരു ആവശ്യങ്ങൾ ഇപ്പം നമ്മൾ യാത്രയ്ക്ക് പോവുവാണെങ്കിലും പോലീസ് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഇത് നിങ്ങളുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ആണെന്ന് പറഞ്ഞാൽ പോലും അവർ അത് അവർ തെളിവുകൾ ചോദിക്കും ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കണം ഇപ്പം നമ്മൾ സർനെയിം മാറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആധാർ കാർഡ് ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ആധാർ കാർഡിൽ നമ്മൾ പേരും മാറ്റണിം ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് ക്രിസ്റ്റീന എന്നാണെങ്കിൽ ഇപ്പോൾ സർനെയിം മാറ്റി കഴിയുമ്പോൾ ക്രിസ്റ്റീന ഇവിൻ നിവിൻ എന്നാവും അങ്ങനെ സർനെയിം മാറ്റിയാലേ നമുക്ക് ഏതൊരു ആവശ്യങ്ങൾക്കും മുമ്പോട്ട് പോവാൻ സാധിക്കുള്ളൂ നമുക്ക് ഇപ്പം എന്തെങ്കിലും കുട്ടികൾ ഉണ്ടായാലും എന്ത് സംഭവിച്ചാലും നമുക്ക് അവർക്കും ഇതൊക്കെ ബാധകമാണെന്ന് ഞങ്ങൾ ഇതുപോലത്തെ ഉള്ള വിവരങ്ങൾ നി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത് വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഇപ്പം നമ്മുടെ കുടുംബത്തിലായാലും ആർക്കായാലും എന്തെങ്കിലും ഒരിത് പോലത്തെ പ്രശ്നങ്ങൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് സർനെയിം മാറ്റിയാലേ നമുക്ക് ശരിയാവുള്ളൂ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഇപ്പം നമുക്ക് ഒരു കുട്ടികളെ ചേർക്കാൻ പോവുമ്പോഴോ എന്തെങ്കിലും ആവുമ്പോൾ സർനെയിം മാറ്റണം സർനെയിം മാറ്റിയോ എന്നൊക്ക അവർ ചോദിക്കും ആ ചോദിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റിയെങ്കിലേ അവർക്ക് പിന്നീട് ഭാവിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ സാധിക്കുള്ളൂ അപ്പം ഇപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ നിങ്ങളോട് ഇതുപോലത്തെ നല്ല ഒരു ഇൻഫോർമേഷൻ ആണ് പാസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കാണണം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അറിയാവുന്ന വ്യക്തികളുടെ എന്തെങ്കിലും ജീവിതത്തിൽ ഇത് പോലത്തെ ഉള്ള എന്തെങ്കിലും എന്തായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോവാൻ സാ സാധിക്കുള്ളൂ ഇപ്പം എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഇതൊക്കെ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഞാനീ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഇതുപോലത്തെ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്താൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ സാധിക്കും സർനെയിം മാറ്റണം ഞങ്ങൾ അതിന് സർനെയിം മാറ്റണമെന്ന് സർനെയിം മാറ്റാനാണ് ഞങ്ങളിപ്പോൾ പോവുന്നത് ഇന്ന് കൊണ്ട് സർനെയിം മാറ്റി എല്ലാം നല്ല രീതിയിൽ തീരുമെന്ന് ആണ് വിശ്വസിക്കുന്നത്